ഹലോ ആ ഇത് കോഴിക്കോടുള്ള സ്കൂൾ അല്ലേ ആ അപ്പോൾ എനിക്ക് എൻറെ മകളെ ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെനിന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളും ഒക്കെ കിട്ടി അപ്പോൾ കോഴിക്കോടേക്ക് ആണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് അപ്പോൾ ഞാൻ അവിടെ ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ അവൾ ബാക്കപ്പ് ചെയ്തെടുത്തുകൊള്ളും കുഴപ്പമൊന്നുമില്ല അവളിപ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ സബ്ജക്ടും ചിലപ്പോൾ അവിടുത്തെ സബ്ജക്ടും ചിലപ്പോൾ വേറെ ആയിരിക്കും അതും ആ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ് പക്ഷേ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അവൾ നല്ലോണം

കുഴപ്പമില്ല അല്ലേ ഓക്കെ അവൾ ആറാം ക്ലാസ്സ് ആ അപ്പോൾ അവിടുത്തെ ഡൊണേഷൻ ഒക്കെ എത്രയാണ് വരുന്നത് വൺ ലാഖ് അല്ലെ ആ ആ ആ ആ

ആ ഓക്കെ

മൂന്നെണ്ണമാണ് ആ ഒക്കെ ആ സാറ്റർഡേ വരെ ക്ലാസ്സ് ഉണ്ടല്ലേ ബുധനാഴ്ചയും വേറെയായിരിക്കും ആ ഓക്കേ ആ അതിപ്പോൾ ഞങ്ങൾ തുണി എടുത്തിട്ട് അവിടെ നിന്നുതന്നെ അടിക്കണൊ അതോ നിങ്ങൾ റെഡിയാക്കി തരുമോ ഇവിടെ നിന്ന് തന്നെ അടിച്ചു തരുമല്ലേ ഓക്കേ ഓക്കേ ആ ഇപ്പോൾ ബുക്കിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ അങ്ങനെ എന്തെങ്കിലും പേ ചെയ്യണോ ഒരുമാസം ആറായിരം രൂപ അല്ലേ ആ ഓക്കേ ഓക്കേ ഇപ്പം ആ അവിടെ നിന്ന് തന്നെയുണ്ടല്ലേ ഇപ്പോൾ ഡാൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്ജില്ല അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൂടില്ലേ എല്ലാം ഉണ്ടല്ലേ ഒക്കെ ഓക്കേ ഓക്കെ ആ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെയുണ്ട്

ആറായിരം രൂപ അല്ലെ ഓക്കേ എന്നാണ് വന്ന് ചേർക്കേണ്ടത് എന്നാണ് നാളെ തന്നെ വരാമല്ലേ ഓക്കേ ഓക്കേ ആ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് മാത്രം മതി അല്ലെ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ പത്തു മണി ആകുമ്പോൾ ഞാൻ അമ്മയും വരണം അല്ലേ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ നാളെ ഒരു രാവിലെ വരാം എന്നാൽ ഓക്കെ മേഡം